സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വളരെ അധികം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗിക്കണമെങ്കിൽ അന്യഭാഷയായ ഇംഗ്ലീഷിൻ്റെ ഉപയോഗം വളരെ അധികം കൂട്ടേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ മലയാളഭാഷയ്ക്ക് കൂടുതൽ പ്രത്യാഘാതമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം മലയാള ഭാഷ ഉപയോഗിക്കുന്നത് കുറയുകയും അന്യഭാഷയായ ഇംഗ്ലീഷ് ഉപയോഗം കൂടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത് മൂലം നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് അടക്കം മലയാളത്തെ മറന്നു പോകുവാൻ വരെ സാധ്യതയുണ്ട് കാരണം ഇംഗ്ലീഷിൻ്റെ ആദ്യ ഇംഗ്ലീഷ് എന്നൊരു അന്യഭാഷയുടെ ആധിപിത്യം വളരെ അധികം ജനങ്ങളിലേക്ക് സ്വാധീനിക്കുന്നു സാങ്കേതികവിദ്യ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെങ്കിൽ അന്യ ഭാഷയും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു ഇത് മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റർനെറ്റ് ഏതൊരു കാര്യവും നമ്മൾക്ക് നമുക്ക് വിവര സാങ്കേതിക വിദ്യ വഴി സെർച്ച് യ്യാനും അന്വേഷിക്കുവാനും അതിനുള്ള ഉത്തരവും അല്ലെങ്കിൽ അതിൻ്റേതായ സ്രോതസ്സുകൾ കണ്ടുപിടിക്കുന്നേനും നമുക്ക് അതിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ മെച്ചകരമായി അന്യഭാഷ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു ഇത് തന്നെയാണ് ജനങ്ങളിലും പുതു തലമുറയ്ക്കും ഉണ്ടാകുന്ന മാറ്റം എന്നു പറയുന്നത് കാരണം മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വളരെ അധികം സ്വാധീനം ചെലുത്താൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട് മലയാള ഭാഷയെ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് അകറ്റുവാനും മലയാള ഭാഷയെ മാറ്റി നിർത്തപ്പെട്ട് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മറ്റു ഭാഷകളെ സ്വാധീനിക്കുവാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്